ഇന്ത്യൻ ആരോഗ്യ സംവിധാനത്തിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യം തൊട്ടേ ഹിസ്റ്ററി വരെ പറയേണ്ടി വരും ലൈക് നമ്മുടെ ആയുർവേദ ആയുർവേദാ എന്നു പറയുന്നത് ഈ ഫസ്റ്റ് ലോകത്തെ ഏറ്റവും ആദ്യത്തെ മെഡിക്കൽ പ്രാക്ടീസ് എന്നറിയപ്പെടുന്ന ആയുർവേദം ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ആ ആയുർവേദത് ആയുർവേദത്തിൽ കൂടുതൽ ചെടികളിൽ നിന്നും അതുപോലെ തന്നെ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നുമാണ് ആ മെഡിക്കൽ ആരോഗ്യ രീതികൾ ആരോഗ്യ സംരക്ഷണ രീതികൾ ഉടലെടുത്തു കൊണ്ടിരുന്നത് ലൈക് നമ്മുടെ ബെയ്സിക്കായിട്ടുള്ള പല ചെടികളിൽ നിന്നായിരുന്നു ആരോഗ്യ സംരക്ഷണത്തിനുള്ള പല കാര്യങ്ങളും പല മുനിമാരും ഒക്കെ ചെയ്തു കൊണ്ടിരുന്നത് അത് കഴിഞ്ഞു നമ്മൾ അത് ഫ്രീ ഇൻഡിപെൻഡന്റല്ലേ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മുൻപെയും ശേഷമൊക്കെ നോക്കുകയാണെങ്കിൽ പോലും അൽമ അറ്റാ ഡിക്ലറേഷനെന്നു പറഞ്ഞിട്ട് വേൾഡ് ലെവലിൽ ലോക തലത്തിൽ ഒരു ഡിക്ലറേഷൻ വന്നായിരുന്നു അതിനു ശേഷമാണ് ലൈക് നമ്മുടെ ഇന്ത്യൻ ആരോഗ്യ രീതിയെ ഓരോ ജനങ്ങളിലോട്ടും അല്ലെങ്കിൽ ഒരു സാമൂഹിക തലത്തിലോട്ട്

സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർക്കു വേണ്ട കാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ പ്ര പ്രൈമറി ഹെൽത്ത് സർവീസസ് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഇപ്പം ബേസിക്കായിട്ട് അവർ അവർ ഫെയ്സു ചെയ്യുന്ന ചലഞ്ചസ് ച അല്ലെങ്കിൽ പ്രതിസന്ധികൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഇൻഫ്രാസ്ട്രച്ചർ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബിൽഡിങ്ങുകളുടെ കുറവാണ് അവർക്ക് ഏറ്റുമായിട്ട് ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ സാധന സാമഗ്രികൾ അക്യുപ്മെന്റ്സിൻ്റെയും കുറവു കാരണമാണ് അവർ മോസ്റ്റ് ഓഫ് ദി മിക്ക പ്രശ്നങ്ങളും നേരിട്ടു കൊണ്ടിരുന്നത് അതിനു ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോക്ടേർസ് പഠിച്ചിറങ്ങുന്ന ഡോക്ടർസ് വെളിരാജ്യങ്ങളിലോട്ടു പോകുകയും നമ്മുടെ പഠിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് സർവീസസ് കോ സർവീസസ് പ്രൊവൈഡ് കൊടുക്കുക കൊടുക്കാതെയുമുള്ള അവരുടെ ആ ഒരു രീതി പണത്തിൻ്റെ പിന്നാലെ പോകുന്നതു കൊണ്ട് പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനെ അതു വളരെയധികം എഫ്ഫക്റ്റ് ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് സമയത്തുള്ള കേരളത്തിൻ്റെ കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കേരള കേരളത്തിൻ്റെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ് കേരളത്തിൻ്റെ ഹെൽത്ത് സിസ്റ്റം എന്നു പറഞ്ഞാൽ ഭയങ്കര ഒരു ലോക തലത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു ഒരു കാര്യമാണ് നമ്മുടെ കോവിഡ് സമയമായാലും നിപ്പ ആയാലും ഒരു നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ ഡോക്ടർസിനു പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന പ്ര ചലൻ പ്രശ്നങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കറപ്ഷനാണ് അല്ലെങ്കിൽ എന്തുവായിരുന്നു രാഷ്ട്രീയ ചിന്തകൾക്കു വേണ്ടി രാഷ്ട്രീയ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്കു വേണ്ടി അല്ലെങ്കിൽ സ സർവീസല്ലെങ്കിൽ ഹെൽത്ത് ഹെൽത്തിന് ഉപയോഗിക്കുന്ന ഒരു രീതി നമുക്ക് ഇന്ത്യൻ ഇന്ത്യൻ ഗവണ്മെന്റിലായാലും ഹെൽത്ത് കേരളത്തിലായാലും നമുക്കു കാണാൻ സാധിക്കും അതൊരു വളരെ വലിയ പ്രശ്നമായിട്ടു നമുക്കു വേണമെങ്കിൽ മുന്നോട്ടു വെക്കാം ഇതാണെനിക്ക് പറയാനുള്ളത്